നമുക്ക് അവരവരുടെ വ്യക്തിത്വത്തിന് ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടാനിഷ്ടങ്ങൾ ആയിരിക്കുമല്ലോ എനിക്ക് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കണം വേണ്ട ടി ടി സിക്ക് പഠിക്കണം വേണ്ട അതും വേണ്ട പഠിക്കണേ വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടാകും അപ്പോൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടം ഓരോരുത്തര് സപ്പറേറ്റ് ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള കോഴ്സുകള് അവിടെ ഉണ്ട് പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞൊരു വ്യക്തി ഡിഗ്രിക്ക് പോകണമെങ്കിൽ പ്രൈവറ്റ് കോളേജുകൾ ഉണ്ട് ഗവൺമെൻറ് കോളേജുകൾ ഉണ്ട് എയ്ഡഡ് കോളേജുകൾ ഉണ്ട് നല്ല നല്ല വിദ്യാഭ്യാസം ഇപ്പോൾ എം ബി എ ബി എ എം എ മലയാളം പിന്നെ എം എ സൈക്കോളജി അങ്ങനെ കുറേ ഇഷ്ടമുള്ള വിഷയങ്ങൾ അവർക്ക് തിരഞ്ഞെടുക്കാം അതേപോലെത്തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട് ഡോക്ടറിന് പോകാൻ നമുക്ക് എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗ് ആവാൻ പറ്റും ഡോക്ടറിനു പോവാം നഴ്സിംഗ് ഫീൽഡ് നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിനു പോകുമ്പോൾ ഒരു നിലവാരം അനുസരിച്ചാണ് നമുക്ക് അതില് ഗ്രേസ് മാർക്ക് വെച്ച് മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ഓരോന്നിലേക്ക് ഇതാകുന്നത് ഏറ്റവും നല്ല ഡോക്ടർ ആകണമെങ്കിൽ നല്ല മാർക്ക് വേണം അപ്പോൾ അതിന് പറ്റിയ കോച്ചിങ്ങ് സെന്ററുകൾ ഉണ്ട് ഒത്തിരി നല്ല നല്ല കോച്ചിങ്ങ് സെന്ററുകൾ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാൻ പറ്റിയ ഒത്തിരി നല്ല സ്കൂളും എനിക്ക് തോന്നുന്നു ഫീസ് ഒന്നും നമ്മുടെ ജില്ലയിൽ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ ഒത്തിരി കുട്ടികള് പഠിക്കാൻ വരുന്നത് കൊണ്ട് തന്നെ കുറേ പിന്നെ ഹോസ്റ്റലുകള് റെന്റിന് ഉള്ള സ്ഥലങ്ങള് ഫ്ലാറ്റുകൾ ഒക്കെ കിട്ടും അപ്പോൾ അത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനു ഒരു ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാവരും നാലഞ്ചുപേര് ഒരുമിച്ച് ആണെങ്കിൽ നമുക്ക് നമ്മുടെ കൈയിൽ നിന്ന് ഒരു നിശ്ചിത തുക കൊടുത്ത് ചേർന്നാൽ മതിയല്ലോ അല്ലെങ്കിൽ വീട്ടിൽനിന്ന് വരുന്ന കുട്ടികൾ ഉണ്ട് ഞങ്ങൾക്ക് ഒക്കെ വീട്ടിൽനിന്ന് വരുമ്പോൾ ഫീസ് മാത്രം കൊടുത്താൽ മതി പിന്നെ വണ്ടിക്കൂലിയും നമുക്ക് ഒതുങ്ങാവുന്ന ഫീസേ ഉള്ളൂ പഠിച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകുമെന്ന് ഉറപ്പുള്ളവർ ആണെങ്കിൽ നമുക്ക് ഒതുങ്ങാവുന്ന ഫീസേ ഉള്ളൂ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മള് പഠിക്കാൻ കൊടുത്ത ഇത് നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ കളരിപ്പയറ്റ് സെർവ്വീസുകൾ ഉണ്ട് ചോയ്സ് ഓഫ് സ്കൂൾ കാൻഡിൽ ലൈറ്റൻസ് ഉണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മന്റ് ഉണ്ട് അവിടെയൊക്കെ നല്ല നല്ല പ്രവർത്തനം ആണ് വലിയ വലിയ പൈസേൻ്റെ ഒരു ഇത് ഇല്ലായെന്ന് ഇല്ല കാരണം നമുക്ക് പഠിച്ചു വരുമ്പോൾ ഒരു കോഴ്സിന് അതിന്റേതായ ഫീ ഉണ്ട്